ഹലോ അ

ആഹ ഇങ്ങൾ കാരണം ഇത്രേങ്കാലം ഇങ്ങൾ പത്ത് മുപ്പത് വർഷം ജോലി ചെയ്തൊരു സ്ഥലത്തെന്ന് നിങ്ങൾ വിട്ട് പോകുമ്പോൾ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണത് ഇങ്ങളൊക്കെ അതിലിത്ര ഒരു ബുദ്ധിമുട്ട് കരുതാനൊന്നുമില്ല ഇതക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണക്കാക്കുക അപ്പോൾ ഈ അതിന ഒരുപാട് സമയം അതിനെപ്പറ്റിയിങ്ങനെ ചിന്തിച്ച് നമ്മൾ അതിനെ വേവലാതിപ്പെടാതിരിക്കുക ഏ കാരണം നമ്മൾ ഒരു ജോലി സമയം കാരണം ജീവിതത്തിൻ്റെ കുറെ കാലം സമയം നമ്മളെന്ത് ചെയ്യും ജോലി ചെയ്തിട്ട് ഇനിയൊരു കുറച്ച് കാലം നമ്മൾ വെറുതെയിരിക്കണ സമയത്തെക്കുറിച്ച് നമ്മളാലോചിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമാണ് കാരണം നിൽക്കിങ്ങനെ നമുക്കിനിയെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യൂന്നുള്ള ഒരു വേലാതികളക്കെ ഉണ്ടാവും പക്ഷേ നമ്മളതിനേപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട അമ്മടെ ജീവിതത്തിൽ അമ്മൾ ഒരുപാട് പ്രതിസന്ധികളക്കെ നേരിട്ട് വന്ന ആൾക്കാർക്ക് ഇതിനെ സംബന്ധിച്ചത്ര വലിയൊരു കാര്യൊന്നുവല്ലത്

ഇങ്ങൾ ഇതിനേപ്പറ്റിയക്കെ ചിന്തിച്ചിരിക്കാറുണ്ടോ അതായത് ഇനിക്കിപ്പം എന്ത് ചെയ്യും അങ്ങനത്തൊരൊഴിവ് സമയം എങ്ങനെ സ്പെന്റ് ചെയ്യുംന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഇങ്ങൾ ചിന്തിച്ചിരിക്കാറുണ്ടൊ

ആ ഇത് ഇങ്ങൾ ഇത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സൈക്കാട്രി ഭാഷയിൽ പറഞ്ഞ് കഴിഞ്ഞാൽ അറ്റെൻഷൻ ഡെഫിസിറ്റ് ഹെപ്പാസിറ്റിയാന്നൊരു രോഗമാണ് ഇതിനെ നമുക്ക് ചെറിയ രീതീലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെത്തന്ന് കഴിഞ്ഞാൽ നമുക്ക് മാറാവുന്നൊള്ളു ഇങ്ങൾ പേടിക്കുവൊന്നും വേണ്ട നമുക്കെന്തെയ്യാം ഇത് നിസാരവായിട്ടന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ ശരി ശരി